ഹലോ ഹലോ ഡോക്ടർ അല്ലേ അതേ മാഡം എനിക്ക് വല്ലാത്ത ഒരു തലവേദനയും നല്ല രീതിക്കുള്ള പനിയും ഉണ്ട് മഴ മഴ നനഞ്ഞില്ലായിരുന്നു ഈ രണ്ടു ദിവസം മുമ്പ് എട്ടുകാലി കടിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പോയ്സൺ ആണോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില ആ അതേ ഇവിടെ വീടിൻ്റെ തൊട്ട് മുമ്പ് പരിസരത്ത് അത്യാവശ്യം എട്ടുകാലി ശല്യം ഉള്ള സ്ഥലമാണ് അപ്പം രണ്ടു ദിവസം മുമ്പ് എന്നെ കടിച്ചിരുന്നു അപ്പോൾ പെട്ടെന്നുള്ള വിറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഇല്ലെന്നെ ഹോസ്പിറ്റലിൽ പോയില്ല അപ്പോൾ വിളിച്ച് നോക്കിയിട്ട് എടുത്തിട്ട് ടോക്കൺ എടുത്തിട്ട് വരാം വച്ചിട്ടായിരുന്നു ടി ടി എടുക്കേണ്ടി വരും ആണല്ലെ ക്ലിനിക്കിലോട്ടാണോ ഫുഡ് ഐറ്റംസ് രാവിലെ ഇപ്പോൾ ഇപ്പോൾ ചായ കുടിച്ചു ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇനി കഴിക്കുകയുള്ളു അപ്പം നൈറ്റ് പിന്നെ സാധാരണപോലെ ഫുഡ് നോൺവെജും കഴിക്കലുണ്ട് പച്ചക്കറി ആ ക്യാരറ്റും കാര്യങ്ങളൊക്കെ വേറെ പോയ്സൺ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എട്ടുകാലി കടിച്ചതിൻ്റെ ആണല്ലെ പാരസെറ്റമോള് പാരസെറ്റമോള് കഴിച്ചിരുന്നു രണ്ടു ദിവസം മുമ്പ് ഇത് പനി തുടങ്ങിയ സമയത്ത്

പെയ്ന് ഉണ്ടായിരുന്നു കടിച്ച സ്ഥലത്ത് വല്ലാണ്ടൊരു കുത്തൽ ഉണ്ടായിരുന്നു അത് അപ്പോൾ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പിമ്പിൽ വന്നിടുണ്ട് അവിടെ അപ്പോൾ ചെറിയ പിമ്പിൽ വന്നിട്ടുണ്ട് അതൊന്ന് വരേണ്ടിവരും ഇനി ഇപ്പോൾ ടോക്കൺ എടുത്തിട്ട് വേണമല്ലോ വരാൻ അപ്പം അതിൻ്റെ അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ആ ആണല്ലെ ഇതെവിടെയായിരുന്നു സ്ഥലം എവിടെയായിരുന്നു കറക്ട് മാനന്ദവാടി ആ ജ്യോതി ഹോസ്പിറ്റലിൻ്റെ അവിടെ ആയിട്ടാണോ

അത് മരുന്നിന് വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് എത്താം അപ്പോൾ താങ്ക് യു ഡോക്ടർ താങ്ക് യു